ഏതൊരു കലാരൂപമാണെങ്കിലും അതിപ്പം മറ്റൊരാളുടെ മുൻപിലവതരിപ്പിക്കുമ്പോൾ ശരീര ഭാഷക്കതിൽ വളരെ വലിയൊരു പങ്കുണ്ട് അതിപ്പം ഒരു പാട്ട് പാടുവാണെങ്കിലും നൃത്തം ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു പ്രസംഗം പറയുവാണെങ്കിലും ശരീരഭാഷ വളരെ അധികം വേണ്ടൊരു കാര്യമാണ് അപ്പം ഒരു സംഗീതാവിഷ്ക്കരണത്തെ അതായതൊരു പാട്ടു പാടുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ മുഖത്തെ ഭാവങ്ങളും നമ്മുടെ കയ്യുടെ ഉപയോഗവും ഒക്കെ അതായത് നമ്മുടെ നമ്മളോരൊ രാഗങ്ങൾ താളമ്പിടിക്കുന്നത് ഒക്കെ വളരെ അധികം വേണ്ടപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ അഭ്യാസം നിരന്തര അഭ്യാസമെന്നു പറയുന്നത് അതില്ലാതെ ഒരു കലയെയും നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കില്ല ചൂടുവെള്ളം കുടിക്കുക നല്ല ആഹാരക്രമം ഉണ്ടാക്കുക എന്നും നമ്മളെക്കൊണ്ട് പറ്റുന്ന സമയത്ത് അഭ്യസിക്കുക അതു വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക ഓരോ പ രാഗങ്ങളല്ലെങ്കിലോരൊ സംഗിതത്തിന്റെ ഓരോരൊ പോഷൻസ് പാടി നോക്കുക എന്നൊക്കെ പറയുന്നത് നിരന്തരാഭ്യാസം തന്നെയാണ് അതിലൂടെ മാത്രമെ നമുക്കാ ഒരു കലയെ വികസിപ്പിച്ചെടുക്കാനും മെച്ചപ്പെടുത്തിയെടുക്കാനും സാധിക്കത്തുള്ളു